ഞാൻ ഇപ്പോൾ വായിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ മലയാളത്തിലെ പ്രശസ്ത നോവലായ രണ്ടാമൂഴം ആണ് മഹാഭാരത കഥ ആസ്പതമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം അഞ്ച് മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായിപ്പോഴും അർജുനനെയോ യുധിഷ്ടിരനെയോ കഴിഞ്ഞ് രണ്ടാംമുഴമേ ലഭിക്കുന്നുള്ളു പാഞ്ചാലിയുടെ കാര്യത്തിൽ ഇത് തുടരുന്നു ഇതാണ് പെരുവിരലിൽ പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാംമൂഴം മഹാഭാരത കഥ തന്നെയാണ് രണ്ടാംമൂഴത്തിൻ്റെ കഥയെങ്കിലും അതിശക്തനും ലളിത ചിന്താഗതിക്കാരനുമായ ഭീമൻ എന്ന മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ഭീമൻ്റെ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളും നോവലിൽ ഭീമൻ്റെ കണ്ണിലൂടെ വിവരിക്കുന്നു പലപ്പോഴും സഹോദരന്മാരുടെ ചിന്തകൾ ഭീമന് മനസ്സിലാവുന്നില്ല കാനന കന്യകയായ ഹെഡിംബിയയിലാണോ അതോ രാജകുമാരിയായ ദ്രൗപതിയിലാണോ ഭീമൻ്റെ കൂടുതൽ പ്രണയം എന്ന് വായിക്കാൻ വായനക്കാരന് സംശയം ഉണ്ടാകുന്നു വായുപുത്രനാണ് എന്ന് വിശ്വസിച്ച് എല്ലാ ആപത്ഘട്ടങ്ങളിലും വായുദേവനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഭീമൻ്റെ പിതൃത്വം കഥാന്ത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു ശക്തനായ ഒരു മകനെ കിട്ടാൻ വേണ്ടി കാട്ടിൽ നിന്നും ചങ്ങലയഴിയിൽ വന്നൊരു കാട്ടാളനെ പ്രാപിക്കേണ്ടി വന്നൂ എന്ന് കുന്തി ഭീമനോട് പറയുന്നു വായുപുത്രനെന്ന് അഹങ്കരിച്ചിരുന്ന ഭീമൻ ഒടുവിൽ അവിടെയും തോൽപ്പിക്കപ്പെടുന്നു ഒടുവിൽ ഭാരതയുദ്ധത്തിന് ശേഷം മല കയറവേ ഓരോ സഹോദരങ്ങളുമായി വീണു പോകുന്നു അവരുടെ പാത പാപങ്ങളാണ് അവരെ വീഴ്ത്തിയതെന്ന് യുധിഷ്ഠിരൻ്റെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് നടക്കവേ ദ്രൗപതിയും വീഴുന്നു ഇതുകണ്ട് ദ്രൗപതിയെ താങ്ങാൻ ഭീമൻ തിരിഞ്ഞു നടക്കുന്നു